അതേ ന്യൂ ലാൻഡ് ബേക്കറിയാണ് എന്ത് ഏതു കേക്കാണ് വേണ്ടത് വാനിലയുണ്ട് സ്ട്രോബെറിയുണ്ട് മാംഗോ ഫ്ലേവറുണ്ട് ഏതു കേക്കാണു വേണ്ടത് ആ എത്ര എത്ര കിലോയുടേയാണു വേണ്ടത് രണ്ട് കിലോയുടെ ഓക്കെ എന്നത്തേക്കിന് വേണം പന്ത്രണ്ടാം തീയ്യതി ഏതു സമയത്തേക്കിന് വേണം ആ മൂന്നു മണിക്ക് നിങ്ങളിവിടെ വന്ന് വാങ്ങുകയോ അതോ അവിടെ കൊണ്ടു തരണമോ കൊണ്ടു തരണം എവിടെയാണ് സ്ഥലം ആ അതിവിടെവിടെയായിട്ടാണ് ആലപ്പുഴയിലെവിടെയാണ് ഹരിപ്പാട് മ്മ് ആ അവിടെ അവി

മ്മ് അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യം എങ്ങനെയാണ് ജങ്കാറ് തരുമോ ഗൂഗിൾ പേ ചെയ്താൽ അതു മതി ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി ആയിരത്തി എണ്ണൂറ് വരും ആയിരത്തി എണ്ണൂറ് രൂപയാകും അതെ നല്ല സാധനമാണ് നിങ്ങൾക്കന്വേഷിക്കാം ആയിരത്തി എണ്ണൂറ് അതു ഡെലിവറി ചാർജ് കൂടി കൂട്ടിയാണ് അത് രണ്ട് കിലോ ഇല്ലേ ഉണ്ട് ഒരു കിലോയ്ക്കിത്ര നിങ്ങൾക്കന്വേഷിക്കാം ഞങ്ങളുടെ കസ്റ്റമർ അതെ നല്ല കസ്റ്റമർ സർവ്വീസാണോ നിങ്ങക്കന്വേഷിക്കാം അന്വേഷിച്ച ശേഷം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി അതു നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ അപ്പം ആ ഫ്ലേവറിന് ആ ഫ്ലേവറിനനുസരിച്ചാണ് വില കൂടുന്നത് എങ്കിൽ ഓക്കെ എങ്കിൽ ഒരിരുന്നൂറ് രൂപ കുറച്ചു തരാം മ്മ് ഓക്കെ ആ ശരി ശരി ഓ ശരി പന്ത്രണ്ടാം തീയ്യതിയിലേക്ക് ഓക്കെ ഓക്കെ താങ്ക് യൂ